ഫോട്ടോഗ്രാഫി ഒരു വിനോദ വൃത്തി തൊഴിലായി കൊണ്ടു നടക്കണമെന്നുള്ളവരോട് എനിക്ക് പറയാനുള്ളത് അത് ഫോട്ടോഗ്രാഫി ഒരു നല്ല ഇത് തന്നെയാണ് പക്ഷേ എന്നാലും ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഇത് അനുസരിച്ചു നമുക്ക് എഐൻ്റെയും എല്ലാത്തിനും ഹെൽപ്പ് ഉണ്ട് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഗ്രഫീസ് ഉണ്ടാവണം തന്നെ ഇല്ല കുറച്ചു കഴിഞ്ഞാൽ എ ഐ ഉണ്ടാവും ചിലപ്പോൾ റോബോട്ട്സിനെ കൊണ്ട് വച്ചു മറ്റേ റോബോട്ടിക് ക്യാമറ അങ്ങനെ ഒരു ഹെൽപ്പുമില്ലാണ്ട് ഒരു ഹാളിൻ്റെ ഉള്ളിലെ കല്യാണം വച്ചാൽ അവിടുത്തെ ഫുളള് ഇത് റോബോട്ടിക്സ് അതിൽ ക്യാമറാമാൻ്റെ ഹെൽപ്പ് വേണ്ട ഫോട്ടോ വേണമെങ്കിൽ പ്രിൻറ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സഹായം എഐൻ്റെ സഹായം വച്ചു ചെയ്യുക അങ്ങനെയൊക്കെ വന്നാൽ ഇത് ഇത് പാഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇത് ഇത് ഈ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു നടക്കുന്ന ക്യാമറാമാൻമാർക്ക് ഒന്നും നടക്കുക ഉണ്ടാവില്ല പിന്നെ ഒരു പണി ഉണ്ടാവില്ല പിന്നെ തൊഴിലില്ലായ്മയിലേക്ക് ആണ് പോയി കൊണ്ടുപോവുക ആ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഫോട്ടോഗ്രാഫീസിൻ്റെ ഒക്കെ ഒരു നല്ല ഇതാണ് ഫോട്ടോഗ്രാഫി ഒരു നല്ല പ്രവൃത്തിയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രണ്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എല്ലാ എല്ലാ തരത്തിലും ഫോട്ടോഗ്രാഫി നല്ല ത് തന്നെയാണ് പക്ഷേ ഈ ഒരു എഐയുടെ ഇതും കൂടെ അതിക്രമിച്ചു വന്നാൽ നമുക്ക് പിന്നെ ഒരു ചാൻസ് ഇല്ലാതായി പോവും അതാണ് എനിക്ക് ഈ ഫോട്ടോഗ്രാഫി ഒരു വിനോദവൃത്തിയോ തൊഴിലായോ കൊണ്ടു നടക്കുന്നുള്ളവരോട് പറയാനുള്ളത്